നമസ്കാരം അത് ഞാൻ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ഊട്ടിയിലേക്ക് ട്രിപ്പ് പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടേ അതിൻ്റെ ഞങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിലോ മൂന്ന് ഡേയ്സ് ആണ് നമ്മൾ തീരുമാനിച്ച് ഇരിക്കുന്നത് അതിൻ്റെ എനിക്ക് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞുതരാമോ എങ്ങനെ ആണ് എക്സ്പെൻസസ്സ് അവിടെ ഉള്ള പ്ലേസസ്സ് ഏതാണ് പിന്ന ഏത് ടൈമിൽ ഒക്കെ പോയാലാണ് നമുക്ക് അവിടെ പോയാൽ നമുക്ക് ഒന്ന് ഒന്ന് അടിച്ച് പൊളിക്കാൻ എൻജോയ് ചെയ്യാൻ പറ്റുക പിന്നെ എൻ്റെ ട്രാൻസ് ട്രാൻസ്പോർട്ട് ചാർജസ് അതിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞ് തന്നാൽ ഞാൻ ഇപ്പം തന്നെ ആ കാർ മതി ആ കാർ മതി അത് ആ അത് അത് മ് ആ അതെ അതെ അതെ ആ ഞാൻ കേട്ടിട്ടുണ്ട്

മ് മ് മ്

ലേക്സ് ഉണ്ട് തോന്നുന്നുണ്ടല്ലേ ആ ഓ ആ ഹാ ഹാ ഹാ

ആ ആ മ് മ് മ് ആ അതെ അതെ മൂന്ന് ദിവസത്തെ ആണ് അപ്പം അത് എങ്ങനെയാണ് ആ താമസം ഭക്ഷണം എല്ലാം നമുക്ക് വേണം അല്ല അല്ല നമ്മളിപ്പോൾ ഏതോ താമസിക്കുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ വല്ല വൃത്തി ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് അവിടെനിന്നുതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആണ്

അല്ല അങ്ങനെ വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫാമിലി വീട്ടിൽ ഞാൻ കുക്ക് ചെയ്ത് ഒക്കെ ഇതായില്ലേ നമ്മൾ ഒന്ന് പുറത്ത് പോവുമ്പോൾ അല്ലേ ഒന്ന് എൻജോയ് ചെയ്യുന്ന സമയത്ത് കുക്ക് ചെയ്യാൻ ഒക്കെ അപ്പം ടൈം നമുക്ക് അത് ഒന്നും ഇതാക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് നിങ്ങൾ തന്നെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്താൽ മതി ആ ആ ആ

അതെ അല്ലേ ഓ ഓ ഓ മ് മ് മ്

മ് മ് മ്

മ് എനിക്ക് ഇതിൻ്റെ എങ്ങനെയാണ് നമ്മൾ ഒരു ഏകദേശം എത്ര എക്സ്പെൻസസ്സ് വരാമെന്ന് ഉള്ളതെന്ന് ജസ്റ്റ് ഒരു ബില്ല് പോലെയോ അല്ലെങ്കിൽ ഒന്ന് ഡീറ്റെയിൽ തരാൻ പറ്റുമോ അപ്പം ഞാൻ ഒന്ന് പോയിട്ട് വീട്ടിൽ പോയിട്ട് ഞാൻ ഒന്ന് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് എഹ് ഓ ഓക്കെ ഓക്കെ ഓക്കെ അതിന്റെ എന്തെങ്കിലും വല്ല ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് തന്നാൽ ഞാൻ പിന്നെ നിങ്ങളെ വന്ന് അറിയിച്ചാൽ മതി അല്ലേ അല്ലെങ്കിൽ ഈ നമ്പർ ആ നമ്പർ തന്നാൽ അതിൽ വാട്ട്സ്ആപ്പ് ചെയ്ത് തരുമോ എനിക്ക് ആ അപ്പം പിന്നെ ഞാൻ എന്താണ് വെച്ചാൽ സെലക്റ്റ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്കാം കേട്ടോ നമ്മൾ എങ്ങനെ വീക്കെൻഡിൽ പോവുകയാണോ നല്ലത് അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സ് ആ ഒരു സമയത്ത് ആണോ നമുക്ക് ചാർജ് കൂടുക ശരിക്ക് വീക്കെൻഡിൽ ഒക്കെ അല്ലേ ആ ആ അതാണ് ആ ആ ആ അതെ അതെ ആ ഹാ ഹാ ഹാ ഹാ അതെ അതെ റൂം അവൈലബിളിറ്റി ഒക്കെ നമ്മൾ അപ്പോൾ നിങ്ങൾ നമ്മൾ പറഞ്ഞാൽ അതിന് മുന്നെ നിങ്ങൾ എല്ലാം ഇതാക്കി വയ്ക്കും ആ സമയത്ത് അവിടെ ചെന്നിട്ട് അതെ അല്ലേ ഓക്കെ ആ ഒരു കാര്യം ചെയ്തോ നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് എൻ്റെ ഈ നമ്പറിലേക്ക് ഒന്ന് ഒന്ന് വാട്സ്ആപ്പ് ചെയ്ത് തന്നാലേ നമ്പർ തരാം അപ്പം നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്ത് തന്നാൽ ബാക്കി ഞാൻ വീട്ടിൽ വന്ന് ഡിസ്കസ് ചെയ്തിട്ട് നേരിട്ട് പറയാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം എന്തെങ്കിലും ചെയ്യാം കേട്ടോ പിന്നെ ക്യാഷ് ഒക്കെ ഓൺലൈൻ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി അല്ലേ ആ ഓക്കെ ഓക്കെ താങ്ക്യൂ സാറെ ശരി